ഹലോ നയൻറ്റിൻ എയ്റ്റിസ് നൊസ്റ്റാൾജിക്ക് റെസ്റ്റോറൻറ്റ് അ പറഞ്ഞോളു അ ഉണ്ട് ഉണ്ട് പിടിയും കോഴിയും ഉണ്ട് വേറെ എന്തെങ്കിലും വേണൊ ബിരിയാണി എത്ര പേർക്കുള്ളതാണ് വേണ്ടത് അമ്പത് പേർക്കാണല്ലേ അ ഓക്കെ ഓക്കെ അ ഓക്കെ ചെയ്യാം അ ഓക്കെ ചെയ്യാം ചെയ്യാം ഇപ്പോൾ എവിടെ ആയിരുന്നു സ്ഥലം എവിടെ ആയിരുന്നു മാനന്തവാടി അല്ലെ അ ഹോം ഡെലിവെറി ചെയ്യുമ്പോൾ അതിൻ്റെ എമൗണ്ട് കൂടി വരും ഇപ്പോൾ ഒരു ബിരിയാണിക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നൂറ്റി അമ്പതാണ് നമ്മള് ഇവിടെ എടുക്കുന്നത് ഒരു ഹ്യൂജ് സ്റ്റേജ് ആയതുകൊണ്ട് നമ്മള് കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാം പിന്നെ ഇത്രയും ദൂരമുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ എമൗണ്ട് കൂടെ കുറച്ച് വരും വലിയ ഇതൊന്നും ആകില്ല ടോട്ടൽ ഏകദേശം ഒരു അയ്യായിരം രൂപേൻ്റെ അടുത്ത് വരും പിടി പിടിയും കോഴിയും ഉണ്ടാകുമല്ലൊ അതും അതിന്റെയും അതും ഇത്ര തന്നെ വേണൊ ക്വാണ്ടിറ്റി ആയിട്ട് ഇരുപത്തി അഞ്ച് മതി അല്ലെ ആ വേറെ എന്തെങ്കിലും വേറെ സ്പെഷ്യല് ഫിഷിൻറ്റെ ഐറ്റംസുണ്ട് മീൻ പൊരിച്ചത് പിന്നേ അങ്ങനെ പല സാധങ്ങളുണ്ട് ചിക്കൻ തന്നെ വെറൈറ്റി ഐറ്റം ഐറ്റംസൊക്കെ ഉണ്ട് ചിക്കൻ ചെട്ടിനാട് പിന്നേ മന്തി ഉണ്ട് അൽഫം മന്തി ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങൾ ഉണ്ട് ഇത് ഏതെങ്കിലും വേറെ എന്തേലും വേണൊ അ ബീഫ് ഉണ്ട് ബീഫിൻ്റെ ബിരിയാണിയാണെങ്കിൽ ബീഫ് ബിരിയാണി ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട് ഇതും അതിൻ്റെകൂടെ ബീഫ് ഫ്രൈയും മറ്റേ പൊറോട്ട അങ്ങനെ എന്തേലും വേണൊ

കറിയാണോ അ ഓക്കെ ഓക്കെ ഓക്കെ എടുക്കാം എടുക്കാം പിന്നേ ബീഫ് ഫ്രൈ അല്ലെ അഡ്വാൻസ് കുറച്ച് പേ ചെയ്യേണ്ടി വരും ബാക്കി അവിടെ നിന്ന് പാർസൽ ഡെലിവെറി ചെയ്താൽ മതി അ ഒരു ഇപ്പോൾ ചെയ്തോളൂ എപ്പോൾ എപ്പോഴാണ് വേണ്ടത് നാളെയാണോ ഇന്നാണോ എന്നാണ് വേണ്ടത് സാധനം എന്നായിരുന്നു വേണ്ടത് മറ്റന്നാളത്തേക്കാണ് അപ്പോൾ മറ്റന്നാള് രാവിലെ എത്തിച്ചാൽ മതി അല്ലെ അ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നാളെ പേ ചെയ്താൽ മതി ഓക്കെ അ ഓക്കെ ഓക്കെ ഒന്ന് വിളിക്ക് നാളെ ഒന്ന് പേ ചെയ്യുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ താങ്ക് യു